ഷാർക്ക് ടാങ്ക് പദ്ധതി അല്ലെങ്കിൽ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് അതിനെക്കുറിച്ച് കണ്ടിട്ടില്ല പക്ഷേ എനിയ്ക്കത് കേട്ട് ഒരാള് പറഞ്ഞു തന്ന അറിവ് വെച്ച് അത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു നമ്മുടെ സാധാ ടീ വി പ്രോഗ്രാം പോലെത്തൊരു പ്രോഗ്രാമിന് ഉപരി ഈ ബിസ്സിനെസ്സ് അല്ലെങ്കിൽ പുതിയ സംരംഭകർക്ക് വേണ്ടി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അതിലെങ്ങനേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയാസ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജെക്റ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവടെ പോയിട്ട് അവരുടെ അടുത്ത് അവതരിപ്പിക്കാൻ പറ്റും അപ്പോൾ അതീന്നു വെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാ അതില് കുറെ ഇൻവെസ്റ്റേഴ്സ് വരും അതുപോലെ കുറെ മാധ്യമ പ്രവർത്തകര് വരും ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്കിത് ഒന്നെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതായത് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പം നമ്മടെ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്താ നമുക്ക് അവര് നമ്മടെ പ്രോജെക്ടില് ഇൻവെസ്റ്റ് ചെയ്യാനൊള്ള കാ കാര്യങ്ങളൊക്കെ സംസാരിക്കുക അവരായിട്ട് നമക്ക് ഡീലിങ്ങോ പാർട്ണർഷിപ്പോ എന്തെങ്കിലും ചെയ്യാം അപ്പൊൾ അവർക്ക് ഇന്ററെസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അവര് നമ്മടെ കയ്യില് ഇൻവെസ്റ്റും കാര്യങ്ങളക്കെ ചെയ്യും അപ്പൊൾ നമുക്ക് പിന്നെ പുറത്തുനിന്നൊരു ഇൻവെസ്റ്റ്മെന്റിനോ വേറെ ഇതിനോ ആൾക്കാരെ കണ്ടെത്തേണ്ട അപ്പൊൾ ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാ എങ്കിലും അവിടുത്തെ മാധ്യമങ്ങള് കൊണ്ട് നമുക്കവിടെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രോജക്ട് അല്ലെങ്കിൽ നമ്മടെ ബിസ്സിനെസ്സ് പ്ലാൻ ലോകത്തില് ഏകദേശം എല്ലാവിടെയും അറിയാൻ പറ്റും അപ്പെന്താണ് ഈ അവടെന്നുള്ള ആള്ക്കാര്ക്ക് ചി വെ ഇൻവെസ്റ്റ് ഇന്ട്രെസ്റ്റ് തോന്നിയില്ലെങ്കിലും പുറത്തുനിന്ന് വേറെ ആൾക്കാർക്കെങ്കിലും കണ്ട് അവര് ഇൻ്ററെസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മടെ പ്രോജെക്ടിലേയ്ക്ക് അവര് പൈസ തരാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഫണ്ട് ഇറക്കാനൊ അങ്ങനെന്തെങ്കിലും കാര്യങ്ങളക്കെ അവര്ക്ക് ഇൻ്റെറെസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും അങ്ങനെ രണ്ട് ഉപകാരമാണ് നമക്ക് മെയിൻ ആയിട്ട് പിന്നെന്താ വേറൊന്നൂടുണ്ട് വെച്ച് നമ്മുടെ പ്രോജക്ടിനെ നമുക്ക് വല്യ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ലോകത്തെ മൊത്തം അറിയിക്കാനും ഇത് നമ്മടെ എന്താണ് പ്ലാന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ലോകത്തെ മൊത്തം പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ അറിയിക്കാൻ പറ്റുന്നൊരു പ്രോ പ്രോഗ്രാം ആണിത്